ആ തീർച്ചയായിട്ടും നമ്മള് പാചകം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ആ പാചകം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മള് വെറൈറ്റി ഫുഡൊക്കെ നമ്മള് ഉണ്ടാക്കാതെ തന്നെ നമ്മള് നിർദ്ദേശങ്ങളായിട്ട് നമ്മള് വേറെ ഏതേലും ബുക്കും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് നോക്കാറുണ്ട് എനിക്കത് പോലെ തന്നെ ഒരു പാചകത്തിനൊരു ബുക്കൊണ്ട് അപ്പം പാചകത്തിന് നമുക്ക് നമ്മള് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ആ ബുക്കില് എന്താണോ കൊടുത്തേ ആ ബുക്കില് എന്ത് നിർദ്ദേശമാണ് കൊടുത്തത് ആ നിർദ്ദേശം വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മളതിനകത്തുള്ള ഓരോ വെറൈറ്റി സാധനങ്ങള് നമ്മള് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുവാണെങ്കില് നമ്മളെന്ത് പാചകം ചെയ്യാണെങ്കിലും ഞാൻ എന്റെ കൂട്ടിനായിട്ട് ആ പാചക പുസ്തകം ഞാൻ പിടിച്ചു വയ്ക്കാറുണ്ട് ആ പാചക പുസ്തകത്തിൽ നോക്കിയിട്ടാണ് ഞാൻ മിക്ക ഫുഡും ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മള് സ്വന്തം ഉണ്ടാക്കുന്നതും നല്ലതാണ് പക്ഷേ എന്നുവച്ചാൽ നമുക്കെന്നാല് ഈ പാചക പുസ്തകത്തിലുള്ള നമുക്ക് നമുക്കറിയാത്ത പല കാര്യങ്ങളൊക്കെ ആ ബുക്കില് എഴുതീട്ടുണ്ടാവും അറിയാത്ത കുറെ കൂക്കിങ് അറിയാത്ത നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ആ ബുക്കിലുണ്ടാകും അതുകൊണ്ടാണ് നമ്മള് വെറൈറ്റി സാധനങ്ങള് ഉണ്ടാക്കുമ്പോഴും എന്ത് ഉണ്ടാക്കുമ്പോഴും നമ്മളാ പാചക ബുക്ക് നമുക്ക് എന്തേലും ആ നിർദ്ദേശങ്ങള് പാചക ബുക്കിലുള്ള നിർദ്ദേശം എന്താണോ എന്താണാവോ അത് അത് അനുസരിച്ച് ഇരിക്കും നമ്മള് പാചകം ചെയ്യുക